ആ ഇത് ടെക്സ്റ്റൈൽ ഷോപ്പല്ലെ ആ എനിക്ക് ഒ ഓണത്തിന് പരിപാടിക്ക് വേണ്ടിയിട്ടേ ഒരു നല്ല ഡ്രസ്സ് ഒരു ഷർട്ട് എടുക്കാനായിരുന്നു ആ ആ ആ പുതിയ ട്രെൻഡ് ഇറങ്ങിയ നല്ല ഷർട്ടുകൾ ഒക്കെ ഉണ്ടോ കളക്ഷൻസ്ണ്ടോ അവിടെ ആ ആ ട്രഡീഷണലിണ്ട്ലെ ആ ആ ആ ഓ ഒരണ്ട് പീസ് മതി ആ ആ ഒരേ ഒരേപോലുള്ള രണ്ട് പീസ് സേം ആ ശരി ഗോൾഡൺ മതി ഗോൾഡൺ അല്ലെ എപ്പോം ഓണത്തിന് അ അ അ അപ്പോൾ ആ ഷർട്ട് പ്രിൻ്റ് നിന്നോട്ടെ സാധാരണ എന്താപറയാ സാധാ സ്റ്റാൻ്റേ ആ കഥകളി അതുപോലെ തന്നെ ഓ ഓ മതി ആ ആ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ട്രെൻഡിങ്ങു് ആ ആ അപ്പോൾ ആ ഒരേ സൈസ് ഉള്ള രണ്ടെണ്ണം രണ്ടും മീഡിയം സൈസാണ് ആ അപ്പോൾ റേറ്റിങ്ങ് കാര്യങ്ങളൊ ആ പിന്നെ ബിറ്റ് നല്ല ക്ലോത്തല്ലെ ക്ലോത്തോക്കെ

ആ ആ അപ്പോൾ ക്ലേ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

ആ ഓ ഓണായിട്ട് ഓഫറ് കാര്യങ്ങളൊന്നും ഇല്ലേ ആ ഓക്കെ ആ ഓക്കേ ഓക്കെ അപ്പംന്ന ഓ ഓ ഓർഡറ് ആക്കിക്കോളി ആ ആ ആ ആ ലൊക്കേഷനും ആ ആ അഡ്വാൻസും ലൊക്കേഷനൊക്കെ ഞാനയക്കാം ആ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നേരിട്ട് വന്ന് അല്ലാണ്ട് ഡെലിവറി ഇല്ലാലോ ആ അതാണല്ലേ ആ ആ ആ എന്നാൽ നേരിട്ട് വന്നെടുക്കാം